ആ ബ്രോ എൻറ്റെ പേര് അഭിനവ് എന്നാണ് അ ആ ഞാന് ബാംഗ്ലൂരില് നിന്നാണ് ആ ചേട്ടാ ഞാനും എൻറ്റെ കുറച്ച് ഫ്രണ്ട്സും വയനാട്ടിലേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് വയനാട്ടിലേക്കെന്ന് പറയുമ്പോള് അവിടുത്തെ ഫേമസ് സ്ഥലമായ കുറുമ്പാലകോട്ട ബാണാസുര സാഗർ ഡാം പുക്കോട് ലേക്ക് അങ്ങനെ കുറച്ച് സ്ഥലത്തേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ നമ്മളങ്ങനെ ചെറിയൊരു പ്ലാനിംഗ് ചെയ്തുവെച്ചതാണ് അപ്പോള് ചേട്ടനെയും കൂടെ വിളിച്ചിട്ട് ചേട്ടൻറ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെയൊന്ന് അറിയുകയായിരുന്നെങ്കില് ഓക്കേ വൈൽഡ് ലൈഫ് ആണല്ലേ ഓക്കേ നമ്മളിപ്പോള് ബാംഗ്ലൂരില് നിന്ന് ഇവിടം വരെ വയനാട് വരെ ഏകദേശം ഒരു ബസ്സിന് വരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇല്ല സ്റ്റേ നോക്കിയിട്ടില്ല സ്റ്റേ അടക്കം നിങ്ങളുടെ സ്റ്റേയും ഫുഡുമൊക്കെ നമുക്ക് വേണം അ ആ പാക്കേജില് ഞങ്ങള്ക്ക് ഫുഡ് സ്റ്റേ എല്ലാ കാര്യങ്ങളും ഇൻക്ലുഡഡാണെങ്കിൽ ഉപകാരം ആയിരുന്നു

ഓക്കേ അപ്പോള് അവിടെ റൂം എടുക്കാമല്ലേ ഓക്കെ പിന്നെ ചേട്ടാ ചേട്ടൻ ചേട്ടൻറ്റെ റേറ്റൊന്ന് പറയുമോ ആ പെർ ഡേ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തോ പെർ ഡേ അല്ലേ

ഓ അപ്പോള് പാക്കേജ് എടുക്കുന്നതാണ് ലാഭമല്ലേ ഓക്കെ ഞാനപ്പം ഓക്കെ അത്രയും വരുമല്ലേ ഞാൻ എന്തായാലും ഫ്രണ്ട്സുമായിട്ടൊന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഒപ്പീനിയൻ കൂടെ കേട്ടിട്ട് ഓക്കെ ഇത് ചേട്ടൻ്റെ പെർമനെൻറ്റ് നമ്പറല്ലേ ഓക്കേ ഓക്കെ ഓക്കെ ഞാനെന്നാല് ഫ്രണ്ട്സിനോടും കൂടെയൊന്ന് പറഞ്ഞിട്ട് ചേട്ടനോട് ഞാന് ഓക്കെ ചേട്ടാ